ആദ്യം ഞാനത്ര പഠക്കുന്നൊന്നും ഇല്ലായിരുന്നു അതായത് ടെൻത്തിലൊക്കെ എനിക്ക് ഭയങ്കര മാർക്ക് കുറവായിരുന്നു പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പത്തേക്കും വീട്ടുകാര് പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ തുടങ്ങി പിന്നെ പ്ലസ് ടുവിന് ആവറേജ് മാർക്ക് അത്ര മാർക്ക് നല്ല മാർക്കൊന്നും അല്ലായിരുന്നു എന്നാലും മാർക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി അപ്പം അവിടെ നല്ല ഒരു തുക കെട്ടി വെക്കേണ്ടി വന്നു അങ്ങനെ പഠിക്കാനായിട്ട് പോയി അവിടുന്ന് മൂന്ന് വർഷത്തെ ക്ലാസ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ട്രെനിങ്ങിന് കയറി ട്രെനിങ്ങിന് ഒരു വൺ ഇയറ് ട്രൈനിങ്ങ് ചെയ്ത് അത് കഴിഞ്ഞ് എനിക്ക് ജോബ് കിട്ടി സാലറി കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് അത് മൂലം ഇപ്പം എന്നെ പോലെ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും മാസത്തില് ഒരു ചെറിയ സാലറി ഞാൻ അവർക്കായി അവർക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുടുംബം നോക്കുന്നത് ഞാനാണ് പിന്നെ എൻ്റെ കാര്യം ഞാനിപ്പം നിൽക്കുന്നത് ഹോസ്റ്റലിലാണ് അപ്പം എൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ എനിക്കിപ്പമത് ഭയങ്കര സന്തോഷമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ കുടുംബത്തിനെ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി എനിക്ക് ഉണ്ട്